ഞാനൊരു ഓൺലൈൻ ഓൺലൈനിൽ നിന്നും ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചായിരുന്നു പക്ഷേ പുറമെ നോക്കുമ്പം നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും കത്തിക്ക് ഭയങ്കര മൂർച്ചയില്ല സൈഡൊക്കെ തുരുമ്പൊക്കെ എടുത്ത് ഒരു അങ്ങനത്തൊരു പ്രോഡക്റ്റായിരുന്നു എനിക്ക് കിട്ടിയത് അഡ്വെർടൈസ്മെൻറ്റ് കാണിച്ചത് പോലെയുള്ളൊരു പ്രോഡക്റ്റല്ലായിരുന്നു എനിക്ക് കിട്ടിയത് മൂർച്ച കുറവായിരുന്നു പിടിക്ക് ഇളക്കമാണ് അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടൊക്കെ അതിനുണ്ടായിരുന്നു പെട്ടെന്ന് കൈ മുറിഞ്ഞു തുരുമ്പിൻ്റെ ഒരംശം ഉണ്ടായിരുന്നു അതുകൊണ്ട് പരസ്യത്തിൽ കാണുന്ന എല്ലാം ശരിയാണെന്ന് ഓർത്ത് നിങ്ങൾ വാങ്ങരുത് നമ്മൾ നേരിട്ട് വാങ്ങുന്ന സാധനത്തിൻറ്റത്രയും എല്ലാം നല്ലതായിരിക്കണമെന്ന് ഉറപ്പില്ല എതായാലും എനിക്ക് ഇന്നും മനസ്സിലായൊരു കാര്യമെന്തെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് വാങ്ങുന്ന സാധനവും അല്ലാതെ ഓൺലൈനിൽ കൂടി കണ്ട് വർത്തിച്ച് വാങ്ങണ സാധനങ്ങൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കാശ് പോയത് മാത്രം മിച്ചം അതുകൊണ്ട് പ്രോഡക്റ്റ് ശരിക്കും എങ്ങനെയാണ് ഏതാന്നൊക്കെ അറിഞ്ഞേച്ച് മാത്രമേ വാങ്ങാവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വന്ന അനുഭവം പോലെയിരിക്കും അതുകൊണ്ട് ഇതിൻറ്റെ നല്ലതും ചീത്തയും നോക്കിയേച്ച് വാങ്ങണമെന്നേ ഞാൻ പറയുകയുള്ളൂ